ഞാൻ യോഗ ക്ലാസിൽ കൂടിയിട്ടൊന്നുമില്ല പക്ഷെ സ്വന്തമായി വീട്ടിൽ പരിശീലിക്കുന്നതിനേക്കാൾ എത്രയോ നല്ലത് ക്ലാസിൽ പോകുന്നതാണ് കാരണം സ്വന്തമായി നമ്മൾ പരിശീലിക്കുമ്പോൾ നമുക്ക് എല്ലാം ചെയ്യേണ്ട വ്യായാമങ്ങളൊന്നും നമുക്ക് കൃത്യായിട്ട് അറിയില്ല പിന്നെ നമ്മൾ അത് ശരിയായി ചെയ്യില്ല ഒരൂ അധ്യാപകൻ്റെ കീഴിലാണെങ്കിൽ നമുക്ക് അത് വ്യക്തമായിട്ട് നമുക്ക് അത് ചെയ്യാനായിട്ട് സാധിക്കും അതായത് അവർ പറഞ്ഞ് തരുന്ന അടവുകളെല്ലാം കൃത്യമായി നമ്മുടെ ശരീരത്തിൻ്റെ ആവശ്യമായ എല്ലാ വ്യായാമങ്ങളും അവർ പറഞ്ഞു തരും നമ്മൾ സ്വയം സ്വന്തമായി വീട്ടിൽ ചെയ്യുമ്പോൾ പിന്നെ നമുക്ക് അലസത വരും അതായത് രണ്ട് വട്ടം രണ്ട് പ്രാവശ്യം ചെയ്യുന്നത് ചിലപ്പോൾ നമ്മൾ ഒരു വട്ടേ ചെയ്യുകയുള്ളൂ പത്ത് വട്ടം ചെയ്യുന്നത് ഒരു നാല് വട്ടം ഒക്കെ ചെയ്ത് അവസാനിപ്പിക്കും ഒരു അധ്യാപകൻ്റെ കീഴിലാണെങ്കിൽ നമുക്ക് അദ്ദേഹത്തോടുള്ള ഒരു ബഹുമാനത്തെ പ്രതി നമ്മൾ എത്രയായാലും ഒരു പത്ത് വട്ടം ചെയ്യും പിന്നെ നമ്മൾ നമ്മളിൽ എന്തെങ്കിലും വീട്ടിലാണെങ്കിൽ നമുക്ക് എന്തെങ്കിലും തെറ്റുകൾ വരാം പക്ഷെ അവിടെ ആണെങ്കിൽ നമ്മൾക്ക് എന്ത് തെറ്റ് വന്നാലും അധ്യാപകൻ കാണിച്ച് തരും ഇത് ശരി ശരിയായിട്ട് പറഞ്ഞ് തരും നമുക്ക് അപ്പോൾ അതനുസരിച്ച് ചെയ്യാനായിട്ട് സാധിക്കും പക്ഷെ ഇത് തന്നെയാണെങ്കിൽ വീട്ടിലാണെങ്കിൽ നമുക്ക് അതിനെക്കൊണ്ട് ഒന്നും പറ്റില്ല നമ്മൾ സ്വയം ചെയ്യുമ്പോൾ എന്തായാലും ഒരു അപാകതകൾ വരും പിന്നെ നമ്മൾ ആ തെറ്റ് വീണ്ടും വീണ്ടും ആവർത്തിച്ച് നമ്മുടെ ശരീരത്തിൻ്റെ ആവശ്യമായ വ്യായാമത്തിന് പകരം അത് ഉപകാരപ്രദമല്ലാത്ത വിധത്തിൽ വരും അപ്പോൾ അതിലും നല്ലത് സ്വന്തമായിട്ട് ചെയ്യുന്നതിനേക്കാളും നല്ലത് ക്ലാസിൽ പോയി സ്വന്തമായിട്ട് അവർ അവരുടെ നിർദ്ദേശമനുസരിച്ച് ചെയ്യുമ്പം നമ്മുടെ ശരീരത്തിൻ്റെ വേദനകളും ബുദ്ധിമുട്ടുകളൊക്കെ മാറും പിന്നെ അദ്ധ്യാപകന് ആദ്യം തന്നെ ഇപ്പോൾ യോഗ ക്ലാസിൽ നമ്മൾ ചെല്ലുമ്പോൾ ആദ്യം തന്നെ ചോദിക്കുക നമുക്ക് എന്തൊക്കെ അസുഖങ്ങളുണ്ട് നമ്മുടെ ഏതൊക്കെ വേദനകളുണ്ട് എന്നൊക്കെ ചോദിക്കുമ്പോൾ അത് അനുസരിച്ചാണ് അധ്യാപകർ നമുക്ക് വ്യായാമം പറഞ്ഞ് തരാ സ്വന്തമായി ചെയ്യുമ്പം നമുക്ക് അറിയില്ല അതേതൊക്കെയാണ് ചെയ്യേണ്ടത് എന്നൊന്നും നമുക്ക് അറിയില്ല പക്ഷെ നമ്മുടെ അദ്ധ്യാപകരാകുമ്പോൾ അവർക്ക് അറിയാം അപ്പം അവർ അത് നമ്മുടെ ശരീരത്തിന് ആവശ്യമായ വേദനകൾ ഏതിന് നമുക്ക് കുറച്ച് തരേണ്ട വേദനകളെന്ന് ചോദിച്ച് തന്നേ അവർ നമുക്ക് അത് കൃത്യമായിട്ട് പറഞ്ഞ് തരും അതിത്ര ടൈമി ഇത്ര സമയത്തിൻ്റെ ഉള്ളിൽ നമ്മൾ അത് ചെയ്യുമ്പോൾ നമ്മുടെ ശരീരത്തിന് അത് ഉപകാരപ്പെടും വീട്ടിലാവുമ്പോൾ നമ്മൾ അത് ഒരു വട്ടമോ രണ്ടു വട്ടമോ ചെയ്ത് അത് അവസാനിപ്പിക്കും പിന്നെ ക്ലാസിൽ പോകുന്നത് എങ്ങനെ എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ ക്ലാസിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് അത് എല്ലാ ദിവസവും എല്ലാ ദിവസവും നമ്മൾ മുടങ്ങാതെ അത് ചെയ്യും വീട്ടിലാവുമ്പോൾ ചിലപ്പോൾ നമുക്ക് ഇന്ന് അത് അസൗകര്യം തോന്നും നാളെ ചെയ്യാൻ നാളെയും അസൗകര്യം തോന്നും അപ്പോൾ പിന്നെ അത് നമുക്ക് അത് അലസത മടി വരും പിന്നെ നമ്മൾ ഇത് ചെയ്യില്ല പിന്നെ വീട്ടിൽ എന്തെങ്കിലുമൊക്കെ ഇപ്പം ഒരു വീട് ഗെസ്റ്റ് വന്നാൽ പിന്നെ നമ്മൾ ഇത് പകുതിക്ക് വച്ച് നിർത്തും ഈ ക്ലാസിലാകുമ്പോൾ അതൊന്നും ഒരു പ്രശ്നനമില്ല നമുക്ക് ധൈര്യമായിട്ട് അവിടെ പോയിരുന്ന് ഒരു അധ്യാപകരെ കീഴിൽ ചെയ്യാം